ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമെന്നു പറഞ്ഞാല് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തില് ഉത്സവം ഉണ്ട് അത് നല്ല ഉത്സവമാണ് പിന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അവിടെ പിന്നെ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമെന്നു പറയുമ്പോള് വള്ളിയൂര് കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെ ഉത്സവമാണ് മാനന്തവാടിയാണ് അതിന്റെ സ്ഥലം മാനന്തവാടി കുറച്ച് പോയാല് വള്ളിയൂര് കാവാണ് അവിടെന്ന് പറഞ്ഞാല് പിന്നെ പിന്നെ വിനോദ സഞ്ചാരികള് എന്ന് പറയുമ്പോൾ സായ്പന്മ്മാരും എല്ലാരും വന്ന് ഇഷ്ടം പോലെ ഫോട്ടോ വീഡിയോ എല്ലാം പിടിക്കും അത്രയും പതിനാല് ദിവസത്തെ ഉത്സവമാണ് വള്ളിയൂര് കാവിലെ ജനങ്ങള് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനങ്ങള് ആയിരിക്കും ഇഷ്ടം പോലെ ജനകൂട്ടമായിരിക്കും പതിനായിരക്കണക്കിന് ജനങ്ങള് ഉണ്ടാവും അവിടെ പിന്നെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഇഷ്ടം പോലെ പിന്നെ ആനയും എഴുന്നള്ളത്തും എഴുന്നള്ളത്ത് എന്ന് പറയും അതൊക്കെ ഇഷ്ടം പോലെ പതിനാലാമത്തെ ദിവസം ഭയങ്കര തിരക്കും കുറെ ആനകളും അങ്ങെനെ ആയിട്ട് കുറെ അത് ഓരോ സ്ഥലത്ത് നിന്നു വരും അത് കുറെ സ്ഥലത്തില് നിന്നു വരാനുണ്ട് എല്ലാ സ്ഥലത്തില് നിന്നു വന്നു അതുപോലെ ആ സമയത്തുള്ള ജനകൂട്ടം ഭയങ്കരമാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമെന്ന് ഉത്സവം അതാണ് ഏറ്റവും വലിയ ഉത്സവം ഈ നാടിന്റെ പ്രതൃേകത പിന്നെ